ഹലോ

ആ ഇതൊരു വെഡ്ഡിങ്ങ് ഫോട്ടോഗ്രാഫി ആൽബത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ ഒരു എൻഗേജാ എൻഗേജ്മെന്റ് അടക്കമാണ് ടോട്ടലായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പം അതിൻ്റെ എത്ര ഹവേഴ്സ് റേറ്റാണോ അതോ പെർ ഡേ റേറ്റാണോ നമുക്ക് വരുന്നത് വൺ ലാക്കിനടുത്ത് വരും അപ്പോൾ സ്പോട്ട് അങ്ങനെ സ്ഥലങ്ങളും കാര്യം എങ്ങനെ ആ ആൽബമടക്കം വേണം മൊത്തത്തിലാണ് ആൽബമടക്കം വേണം ആ വീഡിയോയും വേണം മൊത്തത്തിൽ വേണം അപ്പം എങ്ങനെയാണ് നിങ്ങൾ സ്ഥലങ്ങൾ എങ്ങനെ വൺ ലാക്കിനടുത്താകും അല്ലേ അപ്പം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ച് തരുവോ അതോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ട് പോവണോ ഓക്കെ ഈ വൺ ലാക്ക് എന്നുള്ളത് എങ്ങനെയാണ് ഫിക്സഡ് റേറ്റാണോ അതോ നോർമലായിട്ടുള്ള റേറ്റാണോ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് പൈസ കുറയുവോ അഹാ ആ ഹാ ഹാ ആണ് ആ ഞാ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അങ്ങനെ തന്നെയൊരു വൺ ഡേത്തേയ്ക്കായിരുന്നു അപ്പം മൊത്തത്തിൽ ഫിലിം മൊത്തത്തിലൊരു കൊറിയോഗ്രാഫി മൊത്തത്തിൽ ഒരു ആൽബം സെറ്റപ്പിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു

അല്ല അല്ല അല്ല ഒരു കോസ്റ്യൂമിൽ തന്നെ ഇപ്പോൾ വൺ ഡേ ഇതായിട്ട് ചെയ്യാം എന്നിട്ട് വേ പിന്നെ വേണമെങ്കിൽ പിറ്റേ ദിവിസത്തേക്ക് നമുക്ക് മാറ്റി ചെയ്യാമല്ലോ വൺ ലാക്കിനടുത്ത് വരുമല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളെത്ര പേർ വരും അവിടെനിന്ന് സ്റ്റുഡിയോയിൽനിന്ന് എത്ര പേർ വരും മൂന്ന് പേർ അപ്പം അതിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെയടുത്ത് തന്നെ ഉണ്ടാവില്ലേ നമ്മൾ പിക്ക് ചെയ്യാൻ വരേണ്ട ആവശ്യം ഒന്നും ഇല്ലല്ലോ ആ ഫുഡൊക്കെ നിങ്ങൾ നോക്കും അല്ലേ അപ്പം അതേപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും വെഡ്ഡിങ്ങ് വെഡ്ഡിങ്ങ് ഡേയില്ലേ വെഡ്ഡിങ്ങ് ഡേ ആ ഒരു ആ ആ ഹാ ഹാ അല്ല ഇത് മൊത്തത്തിലല്ലേ വൺ ലാക്ക് പറയുന്നത് വെഡ്ഡിങ്ങിൻ്റെയും അതിൻ്റെ മുമ്പത്തെ ഷൂട്ടും ഫോട്ടോ ഷൂട്ടും ആ അതെ അപ്പം ആ നെക്സ്റ്റ് മന്ത് ഒന്നാം തീയതി ഡിസംബർ ഒന്നിനാണ് ആ അടുപ്പിച്ച് തന്നെയാണ് കേട്ടോ പത്താം തീയതി ആയിട്ടാണ് മാരേജും വരുന്നത് ആ ആപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കൂടെ ചെയ്യുന്നുണ്ട് ആ അപ്പം പെട്ടെന്ന് എടുത്ത് തീർക്കാനുണ്ട് അപ്പം ഞാനിങ്ങനെ ജെസ്റ്റൊന്ന് വിളിച്ച് അന്വേഷിച്ചുവെന്നേ ഉള്ളൂ ആപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെയാണെങ്കിൽ ഇപ്പം അഡ്വാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നുകിൽ ടുമാറോ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ആ മോർണിംഗ് അല്ല അഡ്വാൻസ് പേയ്മെന്റ് നേരത്തെ ചെയ്യണോ അവിടെനിന്ന് നേരെ മതിയോ ആ അങ്ങനെ തന്നെ ചെയ്താൽ മതി അല്ലേ ഇനി മൊത്തത്തിലായിട്ടാണോ അതോ ഘട്ടം ഘട്ടമായിട്ട് ഒന്നു കല്യാണത്തിൻ്റെ ആ ഒരു ഇതിലോ അല്ലെങ്കിൽ

ആ ഫിഫ്റ്റി ആയിട്ടല്ലേ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ് ഞാനെന്ത് ചെയ്യാം എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ജെസ്റ്റൊന്ന് ഡീറ്റെയ്ൽസും കാര്യങ്ങളൊക്കൊന്ന് നേരിട്ട് പറയാമല്ലോ മ് ഓക്കെ താങ്ക്യൂ ഓക്കെ